ഭക്ഷണം ഉണ്ടാക്കുക എന്നത് ഒരു കലയാണ് വളരെയേറെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ടുന്ന ഒരു സംഭവമാ ണ് ഭക്ഷണം ഉണ്ടാക്കുക എന്നത് നമ്മൾ ശ്രദ്ധാപൂർവ്വം മാത്രമല്ല വളരെ ആസ്വദിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയാണത് അപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നത് ഒരു വലിയ തലവേദനയായി മാറുകയില്ല നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ആസ്വദിച്ച് ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും വേണ്ട ചേരുവകളും ക ഒക്കെ ആവശ്യമായ അനുപാതത്തിൽ എടുത്തിട്ട് എടുത്ത് വളരെ ആസ്വദിച്ച് വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർഥങ്ങൾ നമ്മളുണ്ടാക്കുകയും അത് മറ്റുള്ള ആൾക്കാർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷം ഉണ്ടാകും അപ്പം അങ്ങനെ ഞാൻ സാധാരണയായി വളരെ ചെറിയ പ്രായം മുതൽ തന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് താൽപ്പര്യം ഉള്ള കാര്യമായിരുന്നു എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അമ്മയും അമ്മൂമ്മയുമൊക്കെ ഉപയോഗിച്ച് വരുന്ന പാരമ്പര്യമായ പാരമ്പര്യമായി അവർ ഉപയോഗിച്ച് വന്നിരുന്ന രീതികളായിരുന്നു ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് എൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളക്കെ ഉണ്ടാക്കുന്നതിന് ഞാൻ ഉപയോഗിച്ചിരുന്ന രീതികൾ അപ്പം ആ പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ള രുചിക്കൂട്ടുകളും പാചക വിധികളുമൊക്കെ പിന്നീട് ഒറ്റക്ക് താമസിക്കുന്ന വേളയിൽ പുതിയതരം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടാക്കാനും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനും അവരത് കഴിച്ച് സന്തോഷിക്കുന്നത് കാണാനുമൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് ഇപ്പം ചെറിയൊരു കുടുംബത്തിനാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ ടെൻഷനൊന്നും ഇല്ലാതെ സമ്മർദങ്ങളൊന്നും ഇല്ലാതെ വളരെ സാവധാനം ചെയ്യാം പറ്റും എന്നാൽ കുറച്ച് കൂടുതൽ ആൾക്കാർ വരുമ്പോൾ നമ്മളതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ആദ്യം തന്നെ നടത്തൻ നടത്തേണ്ടതായിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആദ്യം തന്നെ ആവശ്യമായ ചേരുവകൾ ആവശ്യമായ അളവിൽ ഉണ്ടോ എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതിൽ പരീക്ഷണങ്ങൾ നമ്മൾ നടത്താൻ വ്യത്യസ്തതകൾ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് ആദ് ആദ്യമേ തന്നെ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട് കൂടുതൽ ആൾക്കാർക്കുള്ള ഭക്ഷണങ്ങൾ പാ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകൾ കൃത്യമായിരിക്കണം എവിടെ എങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ നമുക്ക് അതിനെ തിരുത്തിയെടുക്കാൻ കുറെ ഏറെ സമയമെടുക്കുകയും ഒരു പക്ഷേ അത് വിജയിക്കാതെ വരുകയും ചെയ്യും അതു കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ എനിക്ക് ഒരനുഭവം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് സാധാരണ ഗതിയിൽ ഞാൻ കു കുറെ ഏറെ ആളുകളൊന്നിച്ച് വരുകയാണെങ്കിൽ പുറത്ത് ഭക്ഷണത്തിന് ഓർഡർ ചെയ്യാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് പതിവ് കാരണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നത് വളരേ താൽപ്പര്യമുള്ളൊരു വിഷയമാണ് ഞാൻ അത് ആസ്വദിച്ച് ചെയ്യുന്നൊരാളും കൂടിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടി ഉണ്ടായിരുന്നു എന്നെക്കൊണ്ടത് ചെയ്യാൻ കഴിയും എന്നത് അങ്ങനെ ഒരു വീട്ടിൽ ഒരു പരിപാടി വെച്ച സമയത്ത് മകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി വെച്ച സമയത്ത് ഞാൻ അന്ന് തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യം രണ്ട് ആദ്യത്തെ ചെമ്പ് ദം ബിരിയാണി ഇട്ടപ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് വന്നു പിന്നീട് ആളുകളുടെ നമ്മൾ വിളിച്ചതിനേക്കാൾ കൂടുതലാളുകൾ വന്നപ്പോൾ പിന്നെന്ത് ചെയ്യണം പെട്ടെന്നാണൊരൈഡിയ കിട്ടാതെ വന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ട്ര ശ്രമിച്ചു ഒരു ചെമ്പും കൂടി ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു അതെനിക്ക് വളരെ ആൾ ഇത് തീർന്ന് പോകുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ വളരെ പെട്ടന്ന് തന്നെ അതിനാവശ്യമായ സംഭവങ്ങളൊക്കെ തന്നെ ബാക്കി അതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് വീണ്ടും ഒരു ചെമ്പും കൂടി ഉണ്ടാക്കിയെടുക്കാനായി കഴിഞ്ഞു അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അതേ സമയം തന്നെ എനിക്ക് കുറച്ച് സമ്മർദ്ദവും ഉണ്ടായിരുന്നു കാരണം ഇത് ഏകദേശം പകുതിയായപ്പോൾ തന്നെ അത് നമ്മൾ നമ്മൾ ക്ഷണിച്ചതിനേക്കാൾ കൂടുതലാളുകൾ വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ ആൾക്കാരാണ് വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ചെമ്പും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സം ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞൂന്നുള്ളതാണ് സത്യം അത് എൻ്റെ കൈ വേഗവും എനിക്ക് മുൻപ് ഞാൻ എപ്പോഴും വീട്ടിലെ പാചകം ചെയ്ത പരിചയവും വെച്ചാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയത് മറ്റൊന്ന് എൻ്റെ കൈവശം എല്ലാ സാധനങ്ങലും വീട്ടിൽ തന്നെ ശേഖരിച്ചത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ ചെയ്യാനും പറ്റിയത് ആയതിനാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് ഒരു പായസവും ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കി സെർവ് എല്ലാവർക്കും വിതരണം ചെയ്യുമ്പോൾ എൻ്റെ ഭക്ഷണം കഴിച്ചെല്ലാവരും വളരെ നന്നായി എന്നെ അഭിനന്ദിക്കുകയും ചെയ്തപ്പോൾ എനിക്കത് വളരെ വലിയ സന്തോഷമാണുണ്ടായത് വളരെ നമ്മളിൽ കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായ തയ്യാറെടുപ്പുകൾ തലേദിവസം തന്നെ നടത്തണമെന്നുള്ളതാണ് കാരണം നമ്മൾ പിറ്റേ ദിവസം തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ആ സമയത്ത് എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഗുണ നിലവാരം അളവ് എല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ആയതിനാൽ കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം തന്നെ ആവശ്യമായ സാധനങ്ങൾ സംഘടിപ്പിക്കുകയും വീട്ടിൽ കരുതുകയും ചെയ്യുക കാരണം ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അധികമായി കുറച്ചും കൂടി ഭക്ഷണം ഉണ്ടാക്കേണ്ടുന്ന സാഹചര്യം വന്നാൽ അതിനും കൂടി തയ്യാറെടുപ്പോടു കൂടി വേണം നമ്മൾ സാധനങ്ങൾ ശേഖരിച്ച് വെയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി കടയിൽ പോയി വാങ്ങി കൊണ്ട് വന്ന് ഉണ്ടാക്കാനായിട്ടുള്ള സമയം ഒരുപക്ഷേ കിട്ടിയെന്ന് വരില്ല വ്യത്യസ്തതകൾ പാചകത്തിലെപ്പോഴും വ്യത്യസ്തതകൾ വരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വ്യത്യസ്തതകൾ ആണല്ലോ ഇന്നിപ്പോൾ യൂട്യുബിലും മറ്റ് പരതി കഴിഞ്ഞാൽ ഒരുപാട് പാചക റെസി വിധികളുടെ നമുക്ക് അതിൻ്റെ റെസിപ്പികൾ കിട്ടും അപ്പം അതും നമുക്ക് നമ്മൾ പാരമ്പര്യമായി ഉപയോഗിച്ച് വരുന്ന റെസിപ്പികളും എല്ലാം കൂടി നമ്മളുടെ മനോധർമ്മം കൂടി ചേർത്ത് നമുക്ക് നന്നായി പാ പാകം ചെയ്യാനായിട്ട് കഴിയും പിന്നെ ആദ്യം തന്നെ ഞാൻ ചെയ്യാറുള്ളത് പാകം ചെയ്യുന്ന ഭക്ഷണം ആദ്യം തന്നെ ഞാനൊന്ന് രുചിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് കാരണം അതിൽ വരുന്ന ഏത് കുറവും നമ്മളുപയോഗിച്ചിരിക്കുന്ന മസാലകളുടേതോ അല്ലെങ്കിൽ പൊടി വർഗ്ഗങ്ങളുടേതോ അതിനുപയോഗിച്ചിരിക്കുന്ന ഏത് സാധനത്തിൻ്റെയോ ഏറ്റകുറച്ചിലുകൾ വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിന് പരിഹാരം അതായത് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ രീതിയിൽ അതിനെ ആ കറിയെ അല്ലെങ്കിൽ ആ പദാർത്ഥത്തെ മാറ്റിയെടുക്കാനും കൂടി നമുക്ക് കഴിയണം അപ്പം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അളവുകൾ അത് വളരെ പ്രധാനമാണ് കുറെ ഏറെ പാ പാകം ചെയ്ത് പാചകം ചെയ്ത് പരിചയമുള്ളവർക്ക് ഒരുപക്ഷേ അളവുകൾ മനോധർമ്മമായിരിക്കാം അങ്ങനെ വന്നാൽ നമ്മൾ ചിലരൊക്കെ പാചകവിദഗ്ധർ ഇപ്പോൾ പഴയിടം മോഹനൻ നമ്പൂതിരിയൊക്കെ എത്രയോ വർഷങ്ങളായി കലോത്സവവേദികളിലൊക്കെ അദ്ദേഹം ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് എത്ര ഭംഗിയാണത് കാണാൻ എത്ര കലാപരമായിട്ടാണ് അദ്ദേഹം ആയിര കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത് എത്ര മാത്രം സന്തോഷത്തോടെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അതൊക്കെ പാചകം ചെയ്യുന്നത് കാണാനും അത് ഒരു ചിലർ പാചകം ചെയ്യുന്നത് കാണാനും ഒരു കലയാണ് അത് കണ്ട് നിൽക്കാൻ തോന്നും കഴിക്കാൻ മാത്രമല്ല പാചകം ചെയ്യുന്നത് കാണാനും നമുക്ക് രസമായി തോന്നും മറ്റൊന്ന് എത്ര വലിയ ഒരു ആൾക്കൂട്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷേ നമ്മളുദ്ദേശിച്ച രീതിയിൽ തികയാതെ വന്നാൽ ഉടൻ തന്നെ നമ്മൾ അതിന് മറു മാർഗ്ഗമെന്ന നിലയിൽ ഉടൻ തന്നെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കാനുള്ള ഒരു പദ്ധ്തിയും കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം പാചകം വളരെയേറെ എനിക്ക് വളരെയേറെ താൽപ്പര്യമുള്ള വിഷയവും അതിലേ അതിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ഞാൻ വളരെയേറെ തൽപ്പരയുമായ ഒരു വ്യക്തിയാണ്